ഓക്കെ എന്തായിരുന്നു ഓക്കെ മാം ഞങ്ങൾ ഓക്കെ എന്തായാലും ഇപ്പോൾ അഡ്മിഷൻ കമ്പ്ലീറ്റ് ആണ് എന്തായാലും പിന്നെ ഇത് ഒരു കാര്യം ചെയ്യ് മാം പോരൂ പോരൂ സ്കൂളിലോട്ട് പോരൂ നമുക്ക് നോക്കാം മാം എന്തായാലും വന്നോളൂ നിങ്ങൾ വന്നോളൂ എന്തായാലും വേറെ സ്കൂളിലോട്ട് ചേർക്കാൻ പറ്റില്ലല്ലോ ഇത്രയും ദൂരെ കൊച്ചിനെ വിട്ട് പഠിപ്പിക്കാനും പറ്റില്ലല്ലോ ബുക്ക് കുഴപ്പമില്ല ബുക്ക് അവർക്ക് ആൾറെഡി ഉള്ള ബുക്ക് തന്നെയാണല്ലോ നമുക്ക് അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല നമുക്ക് പിന്നെ പിന്നെ യൂണിഫോം ഒന്നുകിൽ നിങ്ങൾ പുറത്തുനിന്ന് പുറത്തൊരാളെ വെച്ചടിപ്പിക്കുക രണ്ടാഴ്ചക്ക് ഉള്ളിൽ യൂണിഫോം റെഡി ആക്കണം ആദ്യത്തെ രണ്ടാഴ്ച്ച നമുക്ക് കുഴപ്പമില്ല അതിന് മുൻപ് നമുക്ക് യൂണിഫോം റെഡി ആക്കി കിട്ടി ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല രണ്ടാഴ്ച്ച മിനിമം നമ്മൾ പിന്നെ ഒരു സമയം കൊടുക്കുള്ളൂ കാരണം ഇത്രയും ആയല്ലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലാസ് എക്സാം കഴിഞ്ഞു ഓണത്തിൻ്റെ എക്സാം കഴിഞ്ഞു വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് സ്പോർട്സും ആർട്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം ആണ് അപ്പം കുട്ടീനെ അടുത്തയാഴ്ചയെങ്കിലും അടുത്തയാഴ്ച അല്ലെങ്കിൽ ഈ വീക്കിൽ ഏതെങ്കിലും ദിവസം കൊണ്ട്ചേർക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് കാരണം ക്ലാസ് മിസ്സ് ആവത്തില്ലല്ലോ ഫീ വരുന്നത് നമുക്ക് ഒരു വർഷത്തേക്ക് പതിനഞ്ച് സംതിങ് ആണ് വരുന്നത് അല്ല നിങ്ങൾ ഇൻസ്റ്റാ ഇൻസ്റ്റാൾമെൻറ് ആയിട്ട് അടച്ചാൽ മതി അപ്പോൾ നമുക്ക് ഉള്ള ഉള്ളതനുസരിചിപ്പം നിങ്ങൾക്ക് എത്രയാണോ അടക്കാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ മാസം തൊട്ടിട്ട് മാർച്ച് മാസം വരെയുള്ള ഫീ മാത്രം അടച്ചാൽ മതി അതിന് മുൻപുള്ള ഫീ വേണ്ട കട്ട് ചെയ്തു കാരണം കുട്ടി അതുവരെ ഇവിടെ അല്ലല്ലോ പഠിച്ചത് പിന്നെ നമുക്കൊരു ഡൊണേഷൻ വരുന്നുണ്ട് ഒരു ഇരുപതിനായിരം രൂപ ഡൊണേഷൻ ഇതിലോട്ട് വരും ഡൊണേഷൻ നമ്മൾ നിങ്ങൾ ചേർക്കുന്ന അന്നുതന്നെ കമ്പ്ലീറ്റ് ആക്കണം അതുകഴിഞ്ഞിട്ട് ഫീ നിങ്ങൾക്ക് അന്ന് അടയ്ക്കാം ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് പിന്നത്തെ മാസം തൊട്ട് നിങ്ങൾ അടച്ചുതീർത്താൽ മതി ഓക്കെ മാം മാമിന് അത് അതിൻ്റെ കാര്യത്തിൽ ടെൻഷനേ വേണ്ട ഇവിടെ നമ്മൾ നൂറ് ശതമാനം ഉറപ്പുതരും മക്കളുടെ വിദ്യാഭ്യാസത്തിനൊപ്പം അവരുടെ സംസ്കാരവും വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒരാളെ ബഹുമാനിക്കുന്നത് തൊട്ട് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കുന്നുണ്ട് ആ കാര്യത്തിൽ മാം പേടിക്കുകയേ വേണ്ട അപ്പം മാമിന് തീർച്ചയായിട്ടും കുട്ടീനെ ഇവിടേക്ക് വിശ്വസ്തതയോടെ വിടാൻ പറ്റും നമുക്ക് കുട്ടി എങ്ങനെയാണ് ബസിൻ്റെ സർവീസോ അതോ പിന്നെ വണ്ടി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടി പോ നിങ്ങൾ കൊണ്ടുവിടുമോ ഓക്കെ ഓക്കെ ഓ അപ്പം മാം ഒരു കാര്യം ചെയ്യൂ കുട്ടീനെ എന്തായാലും ഈയടുത്ത് വരുന്ന ദിവസങ്ങളിൽ എന്നെങ്കിലും കുട്ടീനെയും കൂട്ടി വരൂ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് അഡ്മിഷനും കാര്യങ്ങളൊക്കെ പ്രൊസീജർ ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ മാം അതും കൊണ്ട് വന്നാൽ മതി നമുക്ക് ഇവിടുന്ന് എല്ലാം ചെയ്തിട്ട് അന്നത്തെ ദിവസം വേണമെങ്കിൽ അവിടെ ഇരുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകുകയോ ചെയ്യാം കുട്ടീനെ രാവിലെ വരുവാണെങ്കിൽ നമുക്ക് ക്ലാസിൽ ഇരുന്ന് അവളൊന്നു എല്ലാം കുട്ടിയൊന്ന് എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിക്കോട്ടെ ഇവിടെ പുതിയ പ്രകൃതം ഒക്കെ അല്ലേ ഇല്ല മാം നമുക്കിവിടെ കിറ്റ് ഒന്നും അലോ അല്ല ഓക്കെ താങ്ക് യൂ മാം